ഈ ഓൺലൈൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആൾക്കാർ ഇപ്പോൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നൃത്തം പഠിക്കുന്നത് അത് നമ്മൾ പുറമെയുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ യൂട്യൂബിൽ കണ്ട് പഠിക്കുകയാണെങ്കിൽ അതിന് ക്യാഷ് ഒന്നും മുടക്കേണ്ട അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം ഇങ്ങനെ ക്യാഷ് മേടിച്ച് അവരെ ഇവിടെ വന്ന് നൃത്തം അഭ്യസിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും ഓൺലൈനും സാങ്കേതികവിദ്യ ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതിന് ആണെങ്കിൽ ക്യാഷ് അധികം വേണ്ട ചിലതിന് ക്യാഷ് നൂറ് രൂപ അങ്ങനെ ഡെപ്പ് എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നൃത്തവും എല്ലാ കാര്യങ്ങളും അഭ്യസ് അഭ്യസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വ്യവസായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും നൃത്തശാലകൾ ഒക്കെ പൂട്ടി പോവേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈനിൽ എല്ലാവരും പഠിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരെങ്കിലും ഒരു നൃത്തത്തെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ചലിപ്പിച്ചാൽ കൈ അങ്ങനെ പോവും ഇങ്ങനെ പോവും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് കണ്ട് റീവൈൻഡ് ചെയ്യാനും അത് എല്ലാ ഓപ്ഷനും അതിനകത്തുതന്നെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നൃത്ത വ്യവസായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തകർന്നു കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ